ഇന്ന് നമ്മളുടെ നാട്ടിലെ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും ആളുകൾ മരുന്ന് അതുപോലെ ഹോസ്പിറ്റലുകൾ ഒക്കെ കൂടുതൽ അഭയം തേടുന്നതിൽ നിന്ന് ഒരു ബദൽ മാർഗ്ഗമായിട്ട് വ്യായാമം കൂടുതൽ സ്വീകരിക്കുന്നു നടക്കാൻ വ്യായാമ പരിശീലനകേന്ദ്രങ്ങളിൽ പോയി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ പ്രസക്തി ആർജിച്ച ഒന്നാണ് നീന്തൽ നീന്തൽ മൂലം ആരോഗ്യം ആരോഗ്യത്തിന് ഒത്തിരി കുളിർമയേറുന്നുണ്ട് ആരോഗ്യത്തെ നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ശാരീരികമായി നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ എല്ലാ തലങ്ങളും കൈ കാല് നമ്മുടെ ശ്രദ്ധ അത്പോലെ തന്നെ മൊത്തത്തിൽ ശരീരത്തിൻ്റെ ദുർമേധസ്സുകളെ കൂടുതൽ നിയന്ത്രിക്കുന്നതിന് ശരീരത്തെ കൂടുതൽ ഈയൊരു ഈ എക്സർസൈസിൽ പങ്കെടുപ്പിക്കുന്നതിന് നീന്തൽ സഹായകമാണ് നീന്തൽ ഒത്തിരി ഉണർവേകുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ശരീരത്തിൻ്റെ സ് ആ അവസ്ഥയെ കുറിച്ച് സ് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് നീന്തൽ സഹായകമാകുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി ആളുകളിൽ നിന്ന് നീന്തൽന് നീന്തൽ കേന്ദ്രങ്ങൾ സ് കണ്ടെത്തി അവിടെ എത്തപെടാറുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗം അല്ലേ മറ്റ് വെ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഇതൊത്തിരി ഉല്ലാസകരമായ ഒന്നായിട്ട് മാറുന്നുണ്ട് വലിയ ആയാസകരമായ ഒരു എക്സർസൈസായിട്ട് കരയിലൂടെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചൂടി ഏകാഗ്രത ലഭ്യമാകാനായിട്ട് നീന്തൽ സഹായകമാകുന്നുണ്ട് അത് തന്നെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ബാലൻസ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു നമുക്കൊത്തിരി നല്ല ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ട് പോകുന്നു ഈ വ്യായാമത്തിലൂടെ ഒരു ക്യാ ഇത് സഹായകമാകുന്നുണ്ട് പിന്നെ നീന്തൽ നീന്തലിലേർപ്പെടുമ്പോൾ നമ്മൾ എന്തുവാണ് കൂടുതലും നമ്മുടെ ശ്വാസത്തെ എത്രത്തോളം ഇങ്ങനെ വ ത്തി നിയന്ത്രിച്ചുകൊണ്ടാണ് നീ ഇതിലേർപ്പെടുന്നത് അപ്പോൾ ആത് കൊണ്ട് നമ്മുടെ ശ്വാസകോശങ്ങൾ നമ്മുടെ ദുഷിച്ച വായുവിനെ കളയുകയും അതുപോലെ തന്നെ നല്ല ശുദ്ധ വായുവിനെ നമുക്ക് സ്വികരിക്കാനും സാധിക്കുന്നു അപ്പോൾ സ അപ്പോൾ ശ്വാസ ഗതിയേ കൂടുതൽ ഈയൊരു വ്യായാമം ചെയ്യുന്നത് വഴി ശ്വാസഗതി നേരായ വഴിയിൽ എത്തിക്കാൻ കൊണ്ടുപോകുവാനായിട്ട് ഇത് സഹായകമാവുന്നുണ്ട് പിന്നെ നമ്മളുടെ ആളുകളിപ്പം നീന്തൽകുളങ്ങൾ ത നീന്തൽ അവനോൻ്റെ സ്വന്തം പുരേടങ്ങളിൽ തന്നെ നീന്തൽ സ്വിമിങ് പൂളുകൾ തയ്യാറാക്കി അതിൽ ചെയ്യാറുണ്ട് ഈ വ്യായാമങ്ങൾ അപ്പം ഒട്ടുമുക്കാൽ ആളുകളും ഇന്ന് ഇതിന് കൂടുതൽ പ്രസക്തി കൊടുക്കുന്നു ആരോഗ്യത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിൽ